ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ട് ഒന്ന് രണ്ടായിരത്തി മൂന്ന് അഞ്ച് രണ്ട് രണ്ടായിരത്തി രണ്ട് ആറ് രണ്ട് രണ്ടായിരത്തി മൂന്ന് ഏഴ് രണ്ട് രണ്ടായിരത്തി രണ്ട്